സാധാരണ ഗതിയിൽ ഉച്ചയൂണിനു ഉണ്ടാവുക ചോറ് സാമ്പാർ ഒരു ഒരു ഉപ്പേരി പപ്പടം ഒരു മീൻകറി പിന്നെ അത്താഴത്തിനാണെങ്കില് ചപ്പാത്തി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചോറ് സാമ്പാർ അല്ലെങ്കിൽ ചോറ് ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ആണ് സാധാരണ ഗതിയിൽ പാചകം ചെയ്യാറ്